എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവറാണ് സ്ക്രൂ ഡ്രൈവറിനെക്കുറിച്ച് പറയാനാണെങ്കില് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്ത് സാധനം ഇപ്പോൾ വണ്ടീൻ്റെ ഓരോ സാധനങ്ങളൊക്കെ അഴിക്കാനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് സ്ക്രൂ ഡ്രൈവറെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ പല തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവറുണ്ട് ഇപ്പോൾ സ്റ്റാറുണ്ട് പിന്നെ മൈനസ് ഉണ്ട് ടെസ്റ്ററുണ്ട് അങ്ങനെ പല രീതിലുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് നമുക്കിപ്പോൾ കടകളിലൊക്കെ കിട്ടും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ വാങ്ങിയത് കണ്ടിട്ടാണ് ഞാൻ ഈ സ്ക്രൂ ഡ്രൈവേഴ്സ് സെറ്റ് ഞാൻ വാങ്ങിയത് അപ്പോൾ അതിനകത്ത് ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട് ഏകദേശം മൂവായിരം നാലായിരം രൂപേൻ്റെ അടുത്ത് സ്ക്രൂ ഡ്രൈവർ സെറ്റും അതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റായിരുന്നു അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വണ്ടീൻ്റെ ഓരോ സാധനങ്ങളൊക്കെ അഴിക്കാൻ വേണ്ടീട്ടാണ് ഞാനത് കൂടുതലായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ അഴിക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും സ്ക്രൂ ഡ്രൈവേഴ്സൊക്കെ വേണം അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്